ആ ഞാനിത് ഫുഡ് ഓഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ എനിക്ക് നോൺ വെജ് എനിക്കു വേണ്ട വെജിറ്റേറിയനായിട്ടുള്ളത് എന്തെങ്കിലും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പൊറോട്ടയും ഗോബി മഞ്ചൂരിയും ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പൊറോട്ടക്കാണെങ്കിൽ മൈദ വേണ്ട വീറ്റ് പൊറോട്ട മതി മൈദ എനിക്കലർജി അല്ല എനിക്ക് ഫുഡ്ഡിൽ കുറച്ച് കാര്യങ്ങളലർജിയുണ്ട് ഗോബി മഞ്ചൂരി ഉണ്ടാക്കുമ്പോൾ നല്ല എരിവുണ്ടായിക്കോട്ടെ ഒരു ദിവസം ഇച്ചിരി എരിവ് കുഴപ്പം ഇല്ല പിന്നെ നട്ട്സെന്തെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ ആ അതൊന്നൊഴിവാക്കിയേക്കണം അപ്പം ഗോബി മഞ്ചൂരിയും പൊറോട്ടയും പിന്നെ കുടിക്കാനുള്ളതെന്തെങ്കിലും ജ്യൂസ് വേണം ആപ്പിൾ ജ്യൂസാണെങ്കിൽ കൊള്ളാം ഇതു മേലുകരയിലാണ് സ്ഥലം ഞാൻ ഫോൺ നമ്പർ അയച്ചു തരാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി